ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഫോട്ടോഗ്രാഫി അവർ ചൂസ് ചെയ്യുന്ന അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോ എടുക്കാൻ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ ഫോട്ടോഗ്രഫിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അവർക്ക് അതിനോട് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് അവർക്ക് സമയമുണ്ട് അവർക്ക് ബോറടിക്കില്ല ആ കാര്യം ചെയ്താൽ അപ്പം അത് ചെയ്യുന്നതിലൂടെ അവർക്ക് ഹാപ്പിനസ് കിട്ടുന്നത് അപ്പം അവരത് ഒരു ജോലി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെതായ അവരുടെ ഏറ്റവും പീക്ക് ലെവലായിട്ടുള്ള അവരുടെ സ്കില്ല് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം അന്നാലേ ആ ഫീൽഡിൽ നമുക്ക് അത് പിടിച്ചുനിൽക്കാൻ പറ്റു ഇപ്പോൾ ഓരോ പുതിയ പുതിയ ഫോട്ടോഗ്രാഫേഴ്സ് അവർ പുതിയ പുതിയ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും അന്നേരം നമ്മളും അതനുസരിച്ച് അപ്ഡേറ്റ് ആയിരിക്കണം ഇപ്പം ഒരാൾ വന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇപ്പം ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാമോ ഒരു ഫോട്ടോ നമ്മൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ അവർ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകരുത് അതുകൂടാതെ ഇപ്പം ടൈം പാസിന് വേണ്ടി എടുക്കുന്നവരാണെങ്കിലും അവരത് ഇഷ്ടത്തോടുകൂടിയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് അതിൻ്റെ അവർ എൻജോയ് ചെയ്താണ് അവർ ചെയ്യുന്നത്